മുപ്പത് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി എമ്പത്തേഴ് ഇരുപത്തേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പതിനഞ്ച് ഏഴ് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരം പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഏഴ്